സമീപ വർഷങ്ങളിൽ ടൂറിസം കൂടുകയോ കുറയുകയോ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടിട്ടേ ഉള്ളു ആൾക്കാർ കൂടുതലായിട്ട് സ്ഥലങ്ങൾ കാണാൻ വല്ലാണ്ട് എന്താ പറയാ ഇപ്പം എന്തെങ്കിലും ഒരു വെക്കേഷൻ ടൈമോ ഇപ്പോൾ അല്ലെങ്കിൽ ശനി ഞായറൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഉള്ള ടൈമുകളാണ് അപ്പം കൂടുതലായിട്ടും ടൂറിസം മേഖലകൾ വ്യാപിക്കുകയാണ് ചെയ്യുന്നത് ആൾക്കാർക്ക് കൂടുതലായിട്ടും വീട്ടിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് വീർപ്പു മുട്ടിട്ടാണ് അവർ കുറേ സ്ഥലങ്ങൾ കാണാനായിട്ട് വരുന്നത് ഇപ്പം നമ്മുടെ സമൂഹത്തിലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ എല്ലാവരും എന്താ ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇപ്പം നമ്മുടെ വയനാട്ടിൽ നിന്ന് നമ്മൾ കോഴിക്കോട് പോകുന്നത് പലതരം പല കാഴ്ചകൾ കാണാൻ വേണ്ടിട്ടാണ് വയനാട്ടിൽ ഇല്ലാത്ത സ്ഥലങ്ങൾ കാണാനൊക്കെയായിട്ടാണ് കോഴിക്കോട് പോകുന്നത് ഇപ്പം ബീച്ച് വിമാനത്താവളം റെയിൽവേ പാഏ റെയിൽവേ ട്രാക്ക് ട്രൈവേ മറ്റേ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ പല തരം സാധനങ്ങൾ കാണാൻ വേണ്ടീട്ടാണ് നമ്മൾഎന്തെയ്യാ കോഴിക്കോട് ആണെങ്കിലും മറ്റു ജില്ലകളിലേക്ക് ആണെങ്കിലും പോകുന്നത് അപ്പം ടൂറിസം മേഖല വാ എന്താ വളരെയധികം ശക്തി പ്രാപിച്ചാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം മീൻമുട്ടി വെള്ളച്ചാട്ടം അങ്ങനെ പലതരം വെള്ളച്ചാട്ടങ്ങളൊക്കെയുണ്ട് അപ്പം നല്ല രീതിയിൽ ടൂറിസം മേഖലകൾ എന്താ ഇത് അതായത് ആ വ ഈ സമീപ കാല വർഷങ്ങളിൽ കൂടുതലായിട്ടാണ് കാണുന്നത്